ഹലോ ഇത് ജല അതോറിറ്റിയുടെ ഉപഭോക്തൃ സേവന വകുപ്പല്ലേ ഞാൻ ജല അതോറിറ്റിയുടെ ഒരു ഉപഭോക്തൃ ആളാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ എട്ട് നാല് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് ആണ് അതുപോലെ എൻ്റെ ബില്ലിങ് സൈക്കിൾ രണ്ട് നാല് ഏഴ് എട്ട് എന്നതുമാണ്

എൻ്റെ വാട്ടർ ബില്ലിൽ ഈടാക്കുന്ന തുകയിലെ ചില പൊരുത്തക്കേടുകൾ ഞാൻ ശ്രദ്ധിച്ചു അതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ദയവു ചെയ്ത് ഉടനടി എൻ്റെ പരിസരത്തു വന്ന് ശരിയാക്കിത്തരണമെന്നും അത് അധികമായി വന്നിട്ടുള്ള തുക ദയവുചെയ്തു തിരിച്ചേൽപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്റെ നമ്പർ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്നതാണ് താങ്ക്യൂ